ഇപ്പോൾ പണ്ട് ഞാനെടുത്ത ഫോട്ടോസുകൾ എന്ന് പറഞ്ഞ് കഴിഞ്ഞാൽ അത് നമുക്ക് കൂടുതലായിട്ടും എന്ന് പറഞ്ഞ് കഴിഞ്ഞാൽ ആ സമയങ്ങളിലൊക്കെ ഇതായിരുന്നു അതായത് ഫിലിം ഉള്ള ക്യാമറയും കാര്യങ്ങളൊക്കെ ആയിരുന്നു അപ്പം അതിൽ നമുക്ക് ഫോട്ടോസ് കാര്യങ്ങളൊക്കെ എടുക്കണമെങ്കിൽ നമ്മളത് കഴുകി കുറേ നേരം ഒരു റൂമിൽ അടച്ചിട്ട റൂമിൽ എന്താ പറയുക വായു സഞ്ചാരമൊന്നും ഇല്ലാണ്ട് അവിടെ വെക്കേണ്ട ഒരവസ്ഥയും കാര്യങ്ങളൊക്കെ ഇണ്ടായിരുന്നു അപ്പം അതു കൊണ്ട് ഞാനൊന്ന് രണ്ടെണ്ണമൊക്കെ ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിനൊക്കെ നല്ല രീതിയിലുള്ള മൂല്യവും കാര്യങ്ളളൊക്കെ ഞാൻ കൊടുത്തിട്ടുണ്ടായിരുന്നു കാരാണമെന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ആദ്യമായിട്ടെടുത്ത ഫോട്ടോസ് അങ്ങനെ കാണുമ്പം തന്നെ ഒരു ഭംഗീ കാര്യങ്ങളൊക്കെ ഉണ്ട് നമ്മുടെ ആദ്യത്തെ ക്യാമറ ഇതൊക്കെ എൻ്റെ കൈയ്യിൽ ഇപ്പോഴും ഉണ്ട് കാരണമെന്താ വെച്ച് കഴിഞ്ഞാൽ എനിക്ക് ക്യാമറകളെ ഭയങ്കര ഇഷ്ടമാണ് അപ്പം ഞാൻ പണ്ട് ആദ്യം ഉപയോഗിച്ച് കൊണ്ടിരുന്ന ക്യാമറ മുതൽ ഇപ്പം ഉപയോഗിക്കുന്ന ക്യാമറ വരെ എനിക്ക് ഭയങ്കര മൂല്യം തരുന്ന ഒന്നാണ് കാരണമെന്താ വെച്ച് കഴിഞ്ഞാൽ ഞാൻ അതായത് പണ്ട് പഠിച്ച് വളർന്നതൊന്നും മറന്ന് പോകാണ്ടിരിക്കാൻ വേണ്ടിയിട്ടും പിന്നെ എൻ്റെ ഓർമ്മക്കായിട്ടും അതായത് എൻ്റെ ഒരു ക്യാമറേൻ്റെ ഫസ്റ്റ് തുടക്കം തന്നെ ഒരു പഴയൊരു ക്യാമറയാണ് ഫിലിമൊക്കെ ഉള്ള അത് അതിൻ്റെയൊക്കെ ഓർമ്മക്കായിട്ടുള്ള ഇതാണിപ്പോൾ പണ്ടുള്ളതിൽ നിന്ന് പറഞ്ഞ് കഴിഞ്ഞാൽ ഇപ്പം ഉള്ളതൊക്കെ ഡിജിറ്റൽ രൂപത്തിലായിട്ടുള്ള ഫോട്ടോസും കാര്യങ്ങളൊക്കെയാണ് കാരണം നമ്മൾ കംപ്യൂട്ടറിലേക്ക് നേരെ കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഫോട്ടോസും കാര്യങ്ങളൊക്കെ നമുക്ക് പെട്ടെന്ന് തന്നെ പ്രിൻറ്റും കാര്യങ്ങളൊക്കെ കിട്ടും ആദ്യമൊന്നും അങ്ങനെ നടക്കില്ല നമുക്കത് അതായത് പ്രിൻ്റെന്ന് പറഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് കോപ്പി അതായത് എടുക്കാനൊക്കെ അങ്ങനത്തെ രീതിയിലുള്ളതാണ് പറ്റുകയുള്ളൂ കാരണം അങ്ങനെയാണ് ആ പണ്ടത്തെ രീതിയിലുള്ള ഫോട്ടോസും കാര്യങ്ങളൊക്കെ ഉള്ളത്